ഞാൻ പാചക ക്ലാസിൽ പങ്കെടുത്തിട്ടുണ്ട് അത് പങ്കെടുത്തിട്ടുള്ളത് അവിടുന്ന് പഠിച്ചത് ബിരിയാണി വയ്ക്കാനായിരുന്നു ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു പഠിച്ചത് അത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും പഠിച്ചു അതിൽ അതുപോലെ തന്നെ എനിക്ക് പഠിക്കാനാഗ്രഹം മന്തിയായിരുന്നു ഞാൻ ഒരുപാട് സുഹൃത്തുക്കളെ മുസ്ലിം സുഹൃത്തുക്കളെ വീട്ടിൽ നിന്ന് മന്തി കഴിച്ചിട്ടുണ്ടാരുന്നു അപ്പോൾ അതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നും മന്തി കഴിച്ചിട്ടുണ്ട് അപ്പം അപ്പം അതുപോലെ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കാൻ നന്നായിട്ട് പഠിച്ചു അത് യൂറ്റ്യൂബിൽ നിന്നും പഠിച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ക്ലാസിൽ പോയി പഠിച്ചു എന്നിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു വീട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി മന്തി ഉണ്ടാക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ട് അത് ഇനി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു